ഇന്ത്യയിൽ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിന്റെ കുറവ് നേരത്തെ നേരിട്ടുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇന്ന് വിദ്യാഭ്യാസത്തിന് സ്ത്രീകളിൽ കൂടുതലായിട്ട് സമൂഹത്തിൽ നിന്ന് മുന്നോട്ട് നയിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വിദ്യാഭ്യാസം നേടുന്നതിലൂടെ തന്നെ ഒരുമാതിരി പെട്ടുള്ള വെല്ലുവിളികളെല്ലാം തരണം ചെയ്ത് പോവാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം തന്നെയാണ് ഇന്ന് ഏത് കാര്യത്തിലും കിട്ടുന്നത് അത് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് കാരണം ഭരണത്തിനാണേലും ഒരു ജോലി സ്ഥാനത്താണെങ്കിൽ തന്നെയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം തുല്യ അവകാശം തന്നെ ലഭിക്കുന്നുണ്ട് അതുകൂടാതെതന്നെ അവർ ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഈ വിവാഹം കഴിപ്പിച്ചിടുമ്പോളും സ്ത്രീ സ്ത്രീധന പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഈ ചില സ്ഥലത്ത് ഇപ്പോഴും നേരിടുന്നുണ്ട് അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് അതല്ലാതെ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്